ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഇൻഷുറൻസ് അല്ലെങ്കിൽ നമുക്കൊരു കാർഡ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രീലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ബില്ലിന്റെ നേർപ്പകുതി ബില്ലത്രയും നമുക്ക് കൊടുക്കേണ്ടി വരില്ല ഒരു ലക്ഷം രൂപേൻ്റെ ബില്ലാണെങ്കിൽ നമുക്കത്ര പൈസ കൊടുക്കണ്ടി വരില്ല ഗവണ്മെന്റീന്ന് പൈസ കിട്ടുന്നതുകൊണ്ട് അവർക്ക് നമുക്ക് പേപ്പർ വർക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലീയറ് ചെയ്ത് അവിടെ കൊടുത്താ മതി നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടും ലാസ്റ്റത്തെ ദിവസം ഇത്ര ദിവസത്തെ ബില്ല് ആ കാർഡ് വച്ചിട്ടാണ് അവരാ എമൗണ്ട് എടുക്കുന്നത് ആ കാർഡാണ് നമ്മള് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതു കൊണ്ട് നമുക്ക് എത്ര എവിടെ വേണേലും ചിത്സിക്കാൻ പറ്റും ഏത് എങ്ങനെ നമുക്ക് ഗവണ്മെന്റീന്ന് മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം രൂപയൊക്കെ ഉണ്ട് ഒരാൾക്ക് അപ്പൊ ആ പൈസയൊക്കെ നമുക്ക് ഗവൺമെന്റിന്റെ ഇതില് നമുക്ക് ചികിത്സിച്ചിറങ്ങാൻ പറ്റും ഇങ്ങനെയൊരു ഇൻഷുറൻസ് പരിരക്ഷ വന്നത് കൊണ്ട് വളരെ സംതൃപ്തയാണ് ഞാൻ കാരണം ഒരു സാധാരണക്കാർക്ക് ഇത് എന്താ പറയാ വളരെ നല്ലൊരു കാര്യാണ് എല്ലാ പ്രദേശത്തെ ആശുപത്രികളിലും ഉണ്ട് നമ്മളിപ്പോൾ പ്രൈവറ്റ് ആശുപത്രീല് ഏറ്റവും കൂടുതല് പോകുന്നത് നമ്മള് ഇപ്പോൾ പല കാര്യത്തിനും പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല നല്ല ഒരിത് കിട്ടുകയും ചെയ്യും നമുക്ക് ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് ആ എമൗണ്ട് നമ്മള് പണ്ടൊക്കെ കാണിക്കുമ്പോൾ ഭയങ്കര ഒരു ഒരു ബില്ലായിരിക്കും നമുക്ക് വരുക പക്ഷെ ഇപ്പോൾ ആ ബില്ല് നമ്മുടെ കാർഡിൽനിന്ന് അവരെടുക്കുന്നുണ്ട് അതുകൊണ്ട് നല്ലതാണെനിക്ക് എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത് സംതൃപ്തരുമാണ് ഞങ്ങൾ